ഫോൺ പെട്ടന്ന് തന്നെ ഹാങ്ങ് ആകുന്നുണ്ട് അതുപോലെ ക്യാമറയുടെ ക്ലാരിറ്റി വളരേ കുറവാണ് നമുക്ക് ക്യാമറയില് ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി തോന്നുന്നുണ്ട് പക്ഷേ ഫോട്ടോ ഗ്യാലറിലേക്ക് വരുമ്പോൾ അത് തീരെ ക്ലാരിറ്റി തീരെ ഇല്ല അതുപോലെത്തന്നെ ഫോൺ ചാർജില് ഒരുപാട് സമയം ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിലേ നൂറ് ശതമാനം ചാർജ് ആകുന്നുള്ളു നമ്മള് രാത്രിയൊക്കെ ചാർജിലിട്ടാൽ രാവിലയേ ചാർജ് ഫുൾ ആകുന്നുള്ളൂ